എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് വേനൽക്കാലമാണ് എന്താന്ന് വച്ച് കഴിഞ്ഞാൽ വേനൽക്കാലത്താണൊരുപാട് നാട്ട് പഴങ്ങളും ഇപ്പോൾ നമ്മള് നോക്കുവാണങ്കിൽ ചക്ക മാങ്ങ പേരക്ക പൈനാപ്പിള് അങ്ങനത്തെ നാടൻ പഴങ്ങള് ഇഷ്ട്ടം പോലെ കിട്ടുന്നൊരു മാസമാണ് വേനൽക്കാലം അതുപോലെ ഏറ്റവും കൂടുതല് നമുക്ക് കളിക്കാന് പറ്റുന്നത് നമുക്ക് വേനൽക്കാലത്താണ് ഇപ്പോൾ കുട്ടികളുടെ ഒപ്പം കളിക്കാൻ പോവുകയാണെങ്കിലും എല്ലാവർക്കും വേനൽ അവധിയായിരിക്കും രണ്ട് മാസം അപ്പോൾ അവരുടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ പറ്റും പിന്നെ എല്ലാത്തിനും പോകും എന്താ പറയുക നമ്മള് കുറെ സ്ഥലങ്ങളിലേക്ക് കാണാൻ പോവുക ഇപ്പോൾ മഴക്കാലമാണെന്ന് പറഞ്ഞാൽ ആർക്കും പുറത്തിറങ്ങാനുള്ള ഒരു മൂഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവൂല്ല ഉണ്ടാവാത്തതിൻ്റെ കുറച്ച് നേരം ഇറങ്ങി നമുക്ക് അധികം ഒരു എൻജോയ്മെന്റ് മൂടോന്നും കിട്ടില്ല അതേപോലെ വേനൽക്കാലത്താണെന്ന് പറഞ്ഞാൽ കുറെ സ്ഥലം കാണാം പോവാം ഇപ്പോൾ പിന്നെ തണുത്ത ഇപ്പോൾ നമ്മള് ഈ ചൂട് കാലത്ത് തണുത്ത വെള്ളം കുടിക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാണ് പിന്നെ അതുപോലെ ചൂട് ചായ പിന്നെ നല്ലോണം നമുക്ക് ഏറ്റവും ഇതാന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറെ നേരം കളിക്കാനുള്ള സമയങ്ങള് കിട്ടും ഇപ്പോൾ ഗ്രൗണ്ടൊക്കെ ആ സമയത്ത് എല്ലാരുമേ പോയി പടങ്ങളക്കേന്ന് പറഞ്ഞാൽ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് പാടമൊക്കെ ഫ്രീ ആയിട്ട് കിടക്കണ സമയമായിരിക്കും അപ്പം ആ സമയത്ത് ഗ്രൗണ്ടില് കൊ കളിക്കാൻ കുട്ടികളുണ്ടാകും അപ്പോൾ അവരുടെ കൂടെ കളിക്കാൻ പറ്റും പിന്നെ നമുക്ക് ബുദ്ധിമുട്ട് കുറഞ്ഞൊരു അതായത് ഇപ്പോൾ നമ്മുടെ ജീവിതത്തെ നോക്കുവാണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തുണിയൊക്ക അലക്കിയിട്ടാണ് പെട്ടന്ന് ഉണങ്ങി കിട്ടാൻ പറ്റും അ അങ്ങനെ നോക്കുവാണത് എന്തു കൊണ്ടും നമുക്ക് വേനൽക്കാലമാണ് എനിക്കേറ്റവും കൂടുതൽ ഇഷ്ട്ടം അത് നമുക്ക് കുറേ കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ വെള്ളം ദാഹം കൂടുതലായിരിക്കും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും അത് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ട്ടം തോന്നിക്കുന്നത് വേനൽക്കാലത്ത് തന്നെയാണ്